ബ്രൈഡൽ ലോക്കസ് സ്പാ പാർലറല്ലേ ആ ചേച്ചി ഞാനവിടെ ഞാനവിടെ കഴിഞ്ഞ മാസം വന്നൊരു കസ്റ്റമറാണ് ആ ഓക്കേ ഞാൻ അവിടെ ഹെയർ സ്പാ ചെയ്യാനും ഹെയറിത് കട്ടെയ്യാനും പിന്നെ കളറീയ്യിക്കാൻ കഴിഞ്ഞ മാസം വന്നിരുന്നു അവിടെ ആ അപ്പോള് ആ അത് അപ്പോള് എൻ്റെ മേക്കപ്പ് നിങ്ങള് ചെയ്തുതന്ന സേവനത്തിനൊത്തിരി നന്ദി കാരണം എൻ്റെ ഞാനൊത്തിരി ടെൻഷനോടെ അവിടെ വന്നത് നല്ല അത്യാവശ്യം നല്ല മുടിയുള്ള എനിക്കത്യാവശ്യം നല്ല മുടി ഉള്ളതുകൊണ്ട് തന്നെ വെട്ടിയാലും കളറെയ്താലും എങ്ങനെ എങ്ങനെ ഇരിക്കും എന്നെനിക്കറിയില്ലാത്തതുകൊണ്ട് ഒത്തിരി സംശയിച്ചാണു ഞാനങ്ങു വന്നത് പക്ഷെ നന്നായിട്ട് തന്നെ ചെയ്തുതന്നു എല്ലാവരും കളറൊക്ക ചെയ്തപ്പോഴും നല്ല എനിക്കു ചേര്ന്ന കളറാണ് എന്ന് എല്ലാവരും പറകയൊക്കെ ചെയ്തു ഇപ്പോള് ആ ഒത്തിരി ആ ഓ ഞങ്ങള് ഇനി ഈ വന്നതിനൊത്തിരി താങ്ക്യൂ പിന്നെയപ്പോള് അതൊന്നു പറയാൻ വേണ്ടി വിളിച്ചതായിരുന്നു ആ ഉറപ്പ് ഉറപ്പായും ഞാനിനിയും ആ എന്തെങ്കിലും ആവശ്യങ്ങളൊക്ക വരുമ്പോള് ഞാൻ നിങ്ങളെ സമീപിച്ചോളാം പിന്നെ ഞാനെൻ്റെ ഫ്രണ്ട്സിനെയും ഫ്രണ്ട്സിലെ ഫാമിലീനെയൊക്കെ ഞാൻ നിങ്ങളുടെ ആ നിങ്ങളുടെ ഞാന് നിങ്ങളെ സലൂൺ ഞാൻ റെക്കമൻ്റെയ്യുന്നതായിരിക്കും പിന്നെ ആ ഇനി ഇപ്പോള് എൻ്റെ ഹെയർ കളര് ഇത് ആറ് ആ ഹെയർ കളര് ചെയ്തത് ആറു മാസത്തേക്കെന്നൊക്കെയാണ് പറഞ്ഞത് കഴിഞ്ഞിട്ടു നമുക്കെന്തെങ്കിലും ചെയ്യാനൊക്കെയുണ്ടോ യാ ഓക്കെ ഉറപ്പായും പിന്നെ ഞാനൊരു കാര്യം കൂടി ചോദിക്കാനാണു വിളിച്ചത് എൻ്റെ ഫ്രണ്ടൊരാള് ആ ഒരു ഇന്ന് ബ്രൈഡ് ബ്രൈഡാവാന് പോവുകയാണപ്പോള് അത് പുള്ളിക്കാരിക്കുള്ള സർവീസ് നിങ്ങള് ചെയ്യുമോ എന്നറിയാൻ കൂടെ വേണ്ടിയാണ് ഞാൻ വിളിച്ചത് അത് അടുത്ത അടുത്ത അടുത്ത മാസത്തേക്കേ കാണൂകയുള്ളൂ നിങ്ങളുടെ ഫുൾ പാക്കേജാണോ റേറ്റെങ്ങനെയുണ്ടാവുമെന്നൊന്നു പറയൂ ഇന്ന് ആ ഓക്കെ എങ്ങനെയാണേലും ഫ്രണ്ടിനൊരു നാലഞ്ച് ഫംഗ്ഷൻ വരുന്നുണ്ടാവും സംഗീത ഹൽദി പിന്നെ ബ്രൈഡ് ടു ബി എൻഗേജ്മെൻ്റ് വെഡ്ഡിംഗ് വെഡ്ഡിംഗ് റിസപ്ഷൻ അങ്ങനെ ഒരഞ്ചാറു പ്രോഗ്രാം വരുന്നുണ്ട് അതിനെല്ലാം ഞങ്ങളില്ലേ ഞാൻ നിങ്ങളെ നിങ്ങളുടെ കാര്യം ഞാനവരോടു സൂചിപ്പിച്ചിട്ടുണ്ട് തീരുമാനമൊന്നും ആയില്ല അപ്പോള് നിങ്ങളുടെ റേറ്റും കാര്യങ്ങളൊക്ക ഒന്നറിയാൻ അറിഞ്ഞ് അറിയാലോ എന്നു വിചാരിക്കാൻ ചോദിച്ചതാണ് അപ്പോള് എന്നാണേലും നിങ്ങളെ റേറ്റ് റേറ്റിൻ്റെ കാര്യവും ഞാൻ അവളോടു പറഞ്ഞേക്കാം അപ്പോഴ്ഡ കൺഫേം അവളുടെ കാര്യം കൺഫേമാണെങ്കിൽ ഞാൻ നിങ്ങളെ ഒന്നും കൂടെ വിളിക്കാം അപ്പോള് എൻ്റെ കാര്യത്തിന് ചെയ്തുതന്നതിനൊക്കെ താങ്ക്യൂ സോ മച്ച് പിന്നെ ഞാൻ ആ അവളുടെ കാര്യം ഞാൻ കൺഫേമാക്കിയിട്ടൊന്നുകൂടെ വിളിക്കാം കേട്ടോ ഓക്കെ ബൈ താങ്ക്യൂ